ഞാൻ ഞാനിവിടെ പുറത്താണ് ആ എൻ്റെ അങ്ങനെ പഴയ കാലത്തെ വീടാണെൽ എന്നു വെച്ച് നമ്മുടെ ഈ വീടിന് കുറെ ഫാൻസുണ്ട്

ആ പഴയ കാലത്തെ വീട് ആ മരം കൊണ്ടെന്നെ ഉണ്ടാക്കിയന്നെയാണ് നമ്മുടെ റൂഫൊക്കെ മരം കൊണ്ടെന്നെ ഉണ്ടാക്കിയ പഴയ പഴയ പോലെ രണ്ട് നില വീടൊക്കെയില്ലേ ആ അതേപോലത്തെ വീടാണ് റെൻറ്റിന് കൊടുക്കാൻ ഈ ഹോം സ്റ്റേയൊക്കെ ഉണ്ട് നമ്മുടെ ടൂറിസ്റ്റ് വരുന്നവർക്ക് ഹോം സ്റ്റേയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടവിടെ ആ ആ ചാർജ് ചാർജോരു ആ ഒരു മുന്നൂറ് അഞ്ഞൂറ് ആ റേറ്റിനൊക്കെ ആ ഒരു ദിവസമോ ഒരു നാളോ സ്റ്റേ ചെയ്യാണെങ്കിൽ ഇല്ല ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലാത്തവർ വേണമെങ്കിൽ നമുക്ക് വേണമെന്ന് പറയാണെങ്കിൽ അ അ അ ആ

ഓ ലാഭൊക്കെയുണ്ട് അ നല്ല ഇതൊക്കെയുണ്ട് നമുക്ക് കുറേ മറ്റേ ടൂറിസ്റ്റ് കാരൊക്കെ ആണ് കുറച്ചൊക്കെ വരുന്നുണ്ട് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അന്ന് വീടൊക്കെ തന്നെയായിരുന്നു അ ഇല്ല ഇതിപ്പോൾ ഒന്ന് കയറ്റാൻ ഉള്ള പ്ലാനിങ്ങായിരുന്നു ആണ് ഇനി ആ വേറെ സ്ഥലത്ത് ആ പഴയപോലെത്തന്നെ എന്നാലും കുറച്ച് ഇതിൽ ആ ട്രഡീഷണലന്നെ എന്നാലും കുറച്ചൊരു വെറൈറ്റി ആവണ രീതീയിൽ ചെയ്യാൻ വേണ്ടി തന്നെ പഴയ മോഡല് തന്നെ എന്നാലും കുറച്ച് കൂടി ഇതാക്കീട്ട് ചെയ്യാൻ വേണ്ടീട്ടായിരുന്നു നമ്മൾവേറെ സ്ഥലത്തും നോക്കുന്നുണ്ട് നീ വരുന്നോ അ അ ആ ആയിക്കോളു നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഓ പിന്നെന്താ വരാലോ വരുമ്പോൾ ജസ്റ്റ് വിളിച്ചാൽ മതി ആ ഓക്കെ